എന്റെ നാട് എന്ന് പറയുമ്പോൾ കുറെ സ്ഥലങ്ങളുണ്ട് സന്ദർശിക്കാനും അതുപോലെത്തന്നെ കുറെ സ്ഥലങ്ങൾ കാണുവാനും നമുക്ക് ആഗ്രഹം തോന്നുന്ന സ്ഥലങ്ങളാണ് അത് കാണുവാനായിട്ട് വിദേശത്ത്നിന്ന് പോലും കുറെ പേർ വരാറുണ്ട് ഞാനും എടക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കുറെ പേരെ കാണാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും ഇവർ എന്റെ നാട്ടിലിങ്ങനെ സന്ദർശിക്കാൻ വരുന്നു പക്ഷേ അപ്പോൾ ഇവർക്കിവിടെ വരുമ്പോൾ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ അങ്ങനെ എനിക്ക് തോന്നിയ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഒന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ എല്ലാ ഭാഷയിലും സ്ഥലങ്ങളുടെ പേരോ അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നോ ഒരിക്കലും ഒരു ബോഡിൽ പല ഭാഷയിൽ ഞാൻ എഴുതി കണ്ടിട്ടില്ല ഇനി ബോഡിൽ ചില ഭാഷകൾ എഴുതിയിട്ടുണ്ടാവും ആ ഭാഷകൾ മനസ്സിലാവാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ വന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഭാഷ അത്ര പരിചയപ്പെടാത്ത പരിചിതമല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചെടത്തോളം ഈ നാട്ടിൽ വന്നാൽ വഴി തെറ്റിപ്പോകാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇനി ബോർഡുകൾ വെക്കുമ്പോഴും ഓരോ സ്ഥലത്തിൻ്റെ പേരുകളെങ്കിലും പല ഭാഷയിലായിട്ട് എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴത്തെ എൻ്റെ നാട്ടിൽ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ വളരെയധികം ചൂടാണ് ഇപ്പോഴത്തെ ഒരു ചൂടെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് സഹിക്കാവുന്ന ചൂടാണ് പക്ഷേ ചിലവർക്ക് അത് പറ്റത്തില്ല ഇപ്പോൾ ഇങ്ങോട്ട് കാഴ്ച്ച കാണാൻ വരുന്ന ഒരു വ്യക്തി തണുപ്പുള്ള ഒരു നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ ചൂടത്ത് ആൾക്ക് ഇവിടെ നിൽക്കാനും അതുപോലെ സ്ഥലം സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് ഈ ചൂട് ചിലപ്പോൾ സഹിക്കാൻ പറ്റാവുന്ന പറ്റുന്നില്ല ആയിരിക്കും ഈ നാട്ടിൽ സ്ഥിരമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് എനിക്ക് തന്നെ പല ബുദ്ധിമുട്ടുകൾ ശാരീരികമായും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തണുപ്പ് തണുപ്പുള്ള ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് അസഹനീയം തന്നെയാണ് പിന്നെ എൻ്റെ നാട്ടിൽ ഗതാഗതത്തെ പറ്റി പറയനാണെങ്കിൽ അത്ര ഗതാഗതത്തെരക്കൊന്നും ഞാൻ ഇത് വരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ എൻ്റെ നാട്ടിലേക്ക് നാട്ട് അന്യ നാട്ടിൽ നിന്ന് വരുന്നവർ മിക്കതും പൂരം കാണാനും അങ്ങനെ എന്തെങ്കിലും വിശേഷപ്പെട്ട ഉത്സവങ്ങൾ കാണാനൊക്കെയായിരിക്കും വരുന്നത് പക്ഷേ അന്നേ ദിവസം ഞങ്ങടെ നാട്ടിൽ നിന്നല്ലാണ്ടും പുറത്തു നിന്നുള്ളവരും വരുന്നത് കൊണ്ട് തന്നെ ഗതാഗതം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സങ്ങളുണ്ടാകുവാനും സാധ്യത ഏറെയാണ് അപ്പോൾ അപ്പോഴത്തെ ഒരു ഗതാഗതം മാറ്റി വെക്കുകയാണെങ്കിൽ വേറെ സാധാരണമായിട്ട് കാണാൻ വരുന്ന വ്യക്തി വ്യക്തിക്ക് ഇവിടത്തെ ഗതാഗതം അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല